മലയാള ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ അത് നമ്മുടെ സംസ്കാരത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് കാരണം നമ്മുടെ കേരളീയ സംസ്കാരം വിളിച്ചോതുന്ന തരത്തിൽ ഉള്ളതാണ് നമ്മുടെ ലാംഗ്വേജ് നമ്മൾക്ക് തരുന്ന നമ്മുടെ മലയാളഭാഷ നമുക്ക് തരുന്ന മൂല്യങ്ങള് വളരെയധികമാണ് നമ്മള് കും ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മളാദ്യം കേള്ക്കുന്നതും സം ആദ്യം കേള്ക്കുന്നതും സംസാരിക്കാന് തൊടങ്ങുമ്പോ ആദ്യം സംസാരിക്കുന്നതും നമ്മുടെ മാതൃഭാഷ മലയാളം തന്നെയാണ് മലയാളം മറ്റുള്ളവര്ക്ക് അതായത് മലയാളം അറിയില്ലാത്തൊരാള്ക്ക് മലയാളം പഠിക്കുക ഭയങ്കര ബു ബുദ്ധിമുട്ടാണ് നമ്മള്ക്ക് മലയാളം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാന് അറിയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും എളുപ്പമാണ് കാരണം മലയാളം അത്ര പ്രയാസമുള്ള ഒരു ലാംഗ്വേജാണ് മറ്റുള്ള ലാംഗ്വേജുകളെ വെച്ച് നോക്കുമ്പോൾ അതാണ് നമ്മുടെ മാതൃഭാഷ അതുപോലെ നമ്മുടെ കേരളത്തിന്റെ തനതായ സംസ്കാരം നമ്മുടെ കലാരൂപങ്ങള് ഇതൊക്കെ നമ്മുടെ ഒരു ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് നമ്മുടെ മലയാളഭാഷ ശ്രേഷ്ഠമായൊരു ഭാ ഭാഷയാണ് അത് നമ്മുടെ വ്യക്തിത്വത്തെ വളരെയധികം സ്വാധീനിക്കും കൂടുതലായിട്ടും നമുക്ക് നമ്മുടെ വ്യക്തി വ്യക്തിത്വത്തില് മെയിനായിട്ടും നമ്മുടെ ഭാഷയ്ക്ക് പ്രാധാന്യമുണ്ട് നമ്മള് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും കൂടുതലായിട്ട് സംസാരിക്കുന്നതും കേള്ക്കുന്നതും ഒക്കെ നമ്മുടെ ഈയൊര് ഭാഷ തന്നെയാണ് മലയാള ഭാഷയ്ക്ക് ഇപ്പം ഒത്തിരി പ്രാചീനമായ വരഷങ്ങളിൽ ഉള്ള ബന്ധവുണ്ട് അത് ചരിത്രപരമായി കാലം ബന്ധങ്ങള് ഈ നമ്മുടെ ഭാഷയ്ക്കുണ്ട് നമ്മുടെ ഭാഷ യ്ക്ക് മാത്രം തനതായിട്ട് ഉള്ള നമ്മുടെ സംസ്കാരത്തിന് മാത്രം തനതായിട്ട് ഉള്ള കുറെ കലാരൂപങ്ങൾ ഉണ്ട് അതെല്ലാം നമ്മുടെ ഈ ഒര് ഭാഷയില് നിന്ന് ഉരിത്തിരിഞ്ഞ് വന്നതാണ് നമ്മുടെ വ്യക്തിത്വത്തെ ഏറ്റവും കൂടുതല് സ്വാധീനിക്കുന്നത് നമ്മുടെ ഭാഷ തന്നെയാണ് നമ്മുടെ ആർഷ ഭാരത സംസ്കാരത്തെയും വൈവിധ്യമാര്ന്ന ഇന്ത്യയുടെ വൈവിധ്യമാര്ന്ന ഭാഷകളുണ്ട് അതില് ശ്രേഷ്ഠഭാഷ സ്ഥാനത്ത് ഉള്ള ഒരു ഭാഷ കൂടിയാണ് മലയാളഭാഷ